തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എൺപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എഴുപതിനായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് ഏഴായിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച്